ഞങ്ങളെ ഇത് പച്ചക്കറിയും ഞങ്ങൾ എപ്പോഴും ഞങ്ങളെ തോട്ടത്തിൽ പൂക്കൾ ഉണ്ടാക്കും ചെണ്ടുമല്ലി മുല്ല കൃഷി പിന്നെ അതല്ലാതെ സേവന്തിക അങ്ങനത്തെ ഒരുപാട് പൂക്കൾ കൃഷി ചെയ്യുന്നുണ്ട് അത് ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചിട്ട് ഞങ്ങൾ ഞങ്ങളെ വിൽപ്പനക്ക് വയ്ക്കും അതുകൊണ്ട് ഞങ്ങൾ ചെറിയ ചെടിയായിട്ട് നട്ടിട്ട് ഞങ്ങൾ ഞങ്ങൾ വീട്ടു മുറ്റത്തും അതല്ലാതെ ഞങ്ങളെ ഞങ്ങളെ സ്ഥലത്തിൻ്റെ എല്ലാ ഭാഗത്തും ഞങ്ങൾ ഇങ്ങനെ പൂച്ചെടികൾ നടും നട്ടിട്ട് ഞങ്ങൾക്ക് അതിനു വേണ്ട പോലെ വളം പിന്നെ അതല്ലാതെ വെള്ളം ഇഷ്ടം പോലെ വെള്ളം വിട്ടിട്ട് ഞങ്ങൾ നല്ലോണം ചെയ്തിട്ട് പൂച്ചെടികൾ നടും അതുകൊണ്ട് ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഇത് മുല്ല കൃഷി മുല്ല മുല്ലപ്പൂ നൽകാൻ കിട്ടാറുണ്ട് ആ കി

മറ്റു ഫംഗ്ഷനുകളിലും അട്മ്പട്ത്തിിയ്ലുിഞങ്ങൾ പൂ കെട്ടിയിട്ട് പൂമാല കെട്ടിയിട്ട് പൂവിൻ്റെ വായ ൻ്റെ വള്ളിയിൽ ഞങ്ങൾ അതിൻ്റെ ഇത് നട്ടിട്ട് മാല ചെയ്യാറുണ്ട് ആ മാല ചെയ്തിട്ട് ഞങ്ങൾ ഇങ്ങനെ വിൽപ്പനയ്ക്ക് കൊടുക്കാറുണ്ട് ആ വിൽപ്പനയ്ക്ക് കൊടുത്തതിൽ നിന്ന് ഞങ്ങൾ ഞങ്ങൾക്ക് അതിന് അനുരിച്ചിട്ട് ഞങ്ങൾ എത്ര പൂക്കൾ കൊടുക്കുന്നുവോ അതിനനുസരിച്ച് ഞങ്ങൾക്ക് പണം ലഭിക്കാറുണ്ട് ഞങ്ങൾ ആ പൂക്കളെ കല്യാണത്തിനും വേറെയായിട്ടും പിന്നെ അമ്പലത്തിലും പിന്നെ അതല്ലാതെ മറ്റേ ബസ് സ്റ്റാൻ്റ് സ്റ്റാൻ്റിലുള്ള വിൽപ്പനക്കാർക്കും ഞങ്ങൾ ഇതിൽ നിന്നും വില്പന ചെയ്യാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് പൂക്കൾ എത്ര എത്ര പോലും നല്ല ഇതായിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഈ പൂക്കൾ ഞങ്ങൾക്ക് പൂവ് ഈ ചെടിയിൽ നിന്ന് ഞങ്ങൾക്ക് പൂക്കൾ ലഭിക്കാറുണ്ട് അതല്ലാതെ ഞങ്ങൾക്ക് സേവന്ധിക അത് ഞങ്ങൾക്ക് എല്ലാ കാലവർഷത്തിൻ്റെ അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാ കാലത്ത് എല്ലാ കാലത്തും കാലത്തിലും ഞങ്ങൾക്ക് ഈ പൂക്കൾ ലഭിക്കാറുണ്ട് ആ പൂക്കൾ ലഭിക്കുന്നത് ഞങ്ങൾ എങ്ങനെ വിൽപ്പന ചെയ്യുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഓരോരോ ഇതിൽ ഇപ്പോൾ ഓണം സീസണിൽ ഞങ്ങൾക്ക് അത് അതിന് നല്ല പോലെ മാർക്കറ്റുണ്ടാകും അപ്പോൾ ഞങ്ങൾ അതിനെ ആ ഓണം ആവുന്ന ടൈമിൽ ഞങ്ങൾ തന്നെ എടുത്തിട്ട് മാല മാല ആക്കിയിട്ട് അതിൽ അങ്ങനെ അതിനെ ഞങ്ങൾ വില്പന ചെയ്യാറുണ്ട് അതല്ലാതെ ഞങ്ങൾ ചെണ്ടുമല്ലി കൃഷി അതും ഞങ്ങൾ ഞങ്ങളെ സ്ഥലത്തിൽ അതിനെ ചെറിയ തൈ ചാലായി നട്ടിട്ട് അതിന് ചെറിയ അതിന് വളം പിന്നെ അത് ഒരേ കളർ ഉള്ളതല്ല പല പല പല വർണ്ണങ്ങൾ ഉള്ളത് ഞങ്ങൾ പൂക്കൾ ചെണ്ടുമല്ലി കൃഷി ൻ്റെ തൈകൾ നടാറുണ്ട് ആ തൈകൾ നട്ടതിന് ഞങ്ങൾ എങ്ങനെ വളർത്തും എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതിനെ വളം അതല്ലാതെ ഇത് വളം പിന്നെ അല്ല വെള്ളം പിന്നെ പൂക്കൾക്ക് ഇടുന്ന വളം അതും ഇടും പിന്നെ ഞങ്ങൾ ഞങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ചാണകം ഞങ്ങൾ പശുക്കളെ വളർത്തുന്ന ന്നന്നെക്കൊണ്ട് ഞങ്ങൾ അതിന് പശുവിൻ്റെ വളം പിന്നെ വീട്ടിൽ മറ്റ് ഇത് മറ്റേ ജൈവ കൃഷി ജൈവ വളം ഞങ്ങൾ തയ്യാറാക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ജൈവ വളം ഇട്ടിട്ടും അതിനെ വളർത്താറുണ്ട് ആ വളർത്തുന്നത് അനുസരിച്ചിട്ട് ഞങ്ങൾക്ക് ആ തൈകളിൽ പൂവിൻ്റെ തൈയിൽ പൂ വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഈ ഓണം ടൈമിൽ ഞങ്ങൾക്ക് ഈ ചെണ്ടുമല്ലി കൃഷിയിൽ നിന്ന് നല്ലോണം പൂക്കളും ഞങ്ങൾക്ക് വില്പനയ്ക്ക് കിട്ടുന്നുണ്ട് അതല്ലാതെ ഞങ്ങൾക്ക് അതല്ലാതെ ഞങ്ങൾക്ക് റോസാപ്പൂക്കളും നടുന്നുണ്ട് ഞങ്ങളെ വീട്ടു മുറ്റത്ത് ഞങ്ങൾ എല്ലാ ചെടിച്ചട്ടിയിലെയും എല്ലാ പൂക്കളും റോസാപ്പൂവിൻ്റെ ചെടികൾ നടും ഇതിൽ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ അതിനെ നട്ടു വളർത്തിയിട്ട് അതിനെ ഞങ്ങൾ ഞങ്ങൾ ഞങ്ങള വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന ജൈവ വളങ്ങൾ ഇട്ടിട്ട് അതിനെ വളർത്താറുണ്ട് അതല്ലാതെ ഞങ്ങൾക്ക് കീടനാശിനി ഞങ്ങളുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന കീടനാശിനികളും നട തളിപ്പിക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ലോണം പൂക്കൾ നല്ല പോലെ തന്നെ ഞങ്ങൾക്ക് ലഭിക്കാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾ അതിനെ വില്പനയ്ക്ക് കൊടുക്കും അത് ഞങ്ങൾ കല്യാണത്തിനോ പിന്നെ ഞങ്ങളെ ബ് പഞ്ചായത്തിലെ പിന്നെ അടുത്ത ഏതേലും ഫംഗ്ഷന് അതിഥികളായിട്ട് വരുന്നവർക്ക് ഞങ്ങൾക്ക് ഈ പൂക്കൾ റോസാപ്പൂക്കൾ ഞങ്ങൾക്ക് അവർക്ക് കൊടുക്കുന്നുണ്ട് സ്വാഗതം ചെയ്യുമ്പോൾ ഞങ്ങൾ ആ റോസാ പൂവിനെ ഞങ്ങൾ അവർക്ക് കൊടുക്കും അതുകൊണ്ട് ഞങ്ങൾക്ക് മറ്റെ പണം കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഇത് വാങ്ങാൻ നല്ല സാധ്യതകൾ ഇതുവരെ വന്നിട്ടുണ്ടാവില്ല പിന്നെ അതല്ലാതെ ഞങ്ങൾ പഴങ്ങൾ ഞങ്ങൾ നേന്ത്ര കൃഷി ഞങ്ങൾ സ്ഥലത്ത് അല്ലാതെ ഞങ്ങൾ പാടത്ത് തന്നെ എടുത്തിട്ട് ഞങ്ങൾ കുടുംബശ്രീൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ രൂപീകരിക്കുന്നുണ്ട് ആ ജെ ജെ രൂപീകരിച്ചിട്ട് ഞങ്ങൾ പാടത്തിന് കൃഷി സ്ഥലം വാങ്ങി പാടത്തിന് സ്ഥലം വാങ്ങി ഞങ്ങൾ ഈ കൃഷി വളങ്ങൾ ഈ നേന്ത്ര പിന്നെ മറ്റേ കദളി ഇങ്ങനത്തെ വാഴ വാഴകൾ നട്ടു വളർത്തിയിട്ട് അതിനു വേണ്ടത് പോലെ വളവും ഇട്ടു കൊടുത്തു അതിന് ഞങ്ങൾ വളർത്താറുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ഈ നേന്ത്രം വാഴ കൊല ലഭിക്കും അത് അതിന് ഞങ്ങൾക്ക് വില്പനക്ക് ഞങ്ങൾ മാർക്കറ്റിലേക്ക് വില്പന നടത്താറുണ്ട് ഞങ്ങൾ വീട്ടിൽ തന്നെ ഞങ്ങളെ പശു വളർത്തനെനോണ്ടും ഞങ്ങൾക്ക് പശുവളം പിന്നെ പശുവിൻ്റെ ചാണകം പിന്നെ ജൈവ വളം ഞങ്ങൾ കൃഷിൻ്റെ ഉപയോഗശൂന്യമായ കൃഷി പച്ചക്കറി കൃഷി പച്ചക്കറിൻ്റെ വേസ്റ്റുകൾ ഞങ്ങൾ ഇട്ടിട്ട് ഞങ്ങൾ സ്വയം സ്വയം ഞങ്ങൾ വളം തയ്യാറാക്കിയിട്ട് ഞങ്ങൾ ഇതിനൊക്കെ ഇടും അപ്പോൾ ഞങ്ങൾ ഇതിനെ ഇട്ട ശേഷം ഞങ്ങൾ നല്ല പോലെ വെള്ളം വെള്ളം ഇട്ട് ഇട്ട് ഞങ്ങൾ ഇട്ട് ഞങ്ങൾ ഈ കൃഷി ചെയ്ത് പശു ഇട്ട് ഞങ്ങൾ വാഴ കോവക്ക അത് ഞങ്ങള് ചന്തകളിലും പിന്നെ അതല്ലാതെ ഷോപ്പ് ഞങ്ങളെ കൃഷി ഭവനത്തിൻ്റെ ഞങ്ങളെ എക്കോ ഷോപ്പിലേക്കും പിന്നെ അതല്ലാതെ ഞങ്ങൾ കുടുംബശ്രീയിൽ ചന്തയിലേക്കും ഞങ്ങളെ ഈ കൊലയിൽ നിന്ന് വിൽക്കാറുണ്ട് അതല്ലാതെ ഞങ്ങൾ ഇത് തണ്ണിമത്തൻ നട്ടു വളർത്താറുണ്ട് തണ്ണിമത്തൻ നട്ടു വളർത്തിയിട്ട് ഞങ്ങൾ വില്പനയ്ക്ക് നൽകാറുണ്ട് ഞങ്ങൾ സ്വയം ഞങ്ങളെ കുഞ്ഞുങ്ങൾക്കും അതല്ലാതെ ഞങ്ങളെ ബന്ധുക്കൾക്കും പിന്നെ അതല്ലാതെ ഞങ്ങൾ സ്വയം വിഷം ഇടാത്ത പച്ചക്കറി പഴങ്ങളും അതെല്ലാം ഞങ്ങൾ ചന്തയിലേക്കും പിന്നെ മറ്റേ ഈ ഇതും മറ്റേ സ്ഥാപനം മറ്റ് ചന്തയിലേക്കും എല്ലാം വിൽക്കാറുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ തയ്യാറാക്കുന്നുണ്ട്